ഹലോ ഇത് ഞാൻ കേയിലുബാണ് എനിക്ക് ഒരു കംപ്ലയിന്റുണ്ട് എൻ്റെ ഷൂസ് കിട്ടിയ ഷൂസ് ഇച്ചിരി അൺകംഫർട്ടബിളാണ് എനിക്ക് അത്ര ചേരണില്ല അപ്പോൾ ഇത് ഫ്ലിപ്പ്കാർട്ടല്ലേ അപ്പം എനിക്ക് ചോദിക്കാം ഇത് എങ്ങനെ റിട്ടേൺ ചെയ്യാം തായത് പ്രൊസീജേഴ്സ് ഉണ്ടോ ഞാൻ അങ്ങോട്ട് വരണോ ഓർ ഞാൻ നിങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ച് കൊണ്ടോവോ ഒന്ന് ഒന്ന് കൺഫേമ് ചെയ്യണം എനിക്ക് ഇത് ഒട്ടും പറ്റില്ല